ഇപ്പോൾ ഞാന് ഒരു സംഘടിത ബൈക്കിങ്ങിൽ ഒക്കെ പങ്ക് എടുത്തിട്ട് ഉണ്ട് ഞാന് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ കയ്യില് ഒരു ബി എം ഡബ്ല്യൂ ഉണ്ട് ഒരു ബൈക്ക് അപ്പോൾ അത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കുടുതലായിട്ട് ഓഫ് റോഡിന് ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ബൈക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാന് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഞാന് കൂടുതലായിട്ട് ഒറ്റയ്ക്ക് അല്ല പോകുക ഇപ്പം നമ്മള് ഒരു ക്യാബ് കാര്യം അതായത് ഒരു ക്ലബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരേയും വിളിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഒക്കെയാണ് കൂടുതലായിട്ടും ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ പോകുക നമ്മള് ഒറ്റയ്ക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാല് എന്താ പറയുക ഇപ്പോൾ ഒറ്റയ്ക്ക് ഒക്കെ പോയി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വണ്ടി പോയിട്ട് തിരിച്ച് എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മള് എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇട്ടിട്ട് വരേണ്ട അവസ്ഥയും കാര്യങ്ങളുമൊക്കെ വരും അപ്പോൾ നമുക്ക് അത് ഒറ്റയ്ക്ക് ഒന്നും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന് കഴിഞ്ഞാല് നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് ഒരു എൻജോയ്മെൻറിന് ഒക്കെ വേണ്ടിയിട്ട് നമ്മള് കുടുതലായിട്ട് ക്ലബുകളൊക്കെ കൂട്ടിയിട്ട് ഒക്കെ ആണ് കൂടുതലായിട്ടും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നല്ല ഒരു അനുഭവം ആയിരുന്നു എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് വേണമെങ്കില് നമുക്ക് പോയിട്ട് വരാം